ഹലോ ആ ഇത് റസ്റ്റോറൻ്റ് അല്ലേ സോളാ റസ്റ്റോറൻ്റ് ഹലോ ആ എനിക്കെ ഒരു പ്ലെയ്ററ്റ് കരിമീൻ പൊള്ളിച്ചതും പെപ്പർ ഫ്രൈ വരാൽ ഫ്രൈ ഇത് കൊടുത്തുവിടാൻ പറ്റുവോന്ന് അറിയാൻ വേണ്ടീട്ടായിരുന്നു കരുവാറ്റാക്കടുത്താണ് ഞാൻ താമസിക്കുന്നത് ആ കടത്തിവെല്ലൊ നല്ല സ്ഥലവാണ് ഇന്നാലും കൊടുത്തു വിടാൻ പറ്റുവോ അറിയാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് നല്ല നിലവാരമുള്ളതായൊണ്ടാണ് ഞാൻ തിരിച്ച് വിളിക്കുന്നത് നല്ല അഭിപ്രായമാണ് നല്ല രുചിയുണ്ട് അത് അന്നേരം ആർട്ടിഫിഷ്യൽ ഒന്നും ഇല്ലാത്തതാണെന്നുള്ളത് മനസിലാക്കി കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ചോദിക്കുന്നത് ശരി വരാൽ ഫ്രൈ വരാൽ ഫ്രൈ അത് കുഴപ്പമില്ല നിങ്ങളെ വിശ്വാസത്തിൽ എടുത്തോണ്ട് വന്നത് ഇതിലേക്ക് വന്നത് അത് തീർച്ചയായും ചെയ്യും തീർച്ചയായും ചെയ്യും കൊടുത്തു വിട്ടൊളു അതിൽ ആ അത് അത് തീർച്ചയായും ചെയ്യും അത് തീർച്ചയായിട്ടും ചെയ്യും

ശരി എന്നാൽ പോട്ടെ ഓക്കെ